ആ ആ ഹലോ ഞാൻ എനിക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ആണ് ഈ സ്ഥലത്ത് അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ള പിന്നെ കടൽ വിഭവങ്ങൾ കിട്ടുന്ന കുറച്ച് കടകളെക്കുറിച്ച് ഒന്ന് അറിയണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ വിളിച്ചത് കേട്ടോ

ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ

അപ്പോൾ ഞാൻ ഈ ആഴ്ച തന്നെ വരും അപ്പോൾ എന്നാണ് ഞാൻ വരുന്നതെന്ന് ഞാൻ വിളിച്ച് പറയാം അപ്പോൾ ആ എൻ്റെ കൂടെ ഒന്ന് ആ സ്ഥലം ഒക്കെ വന്ന് ഒന്ന് പരിചയപ്പെടുത്തിത്തരണം നല്ല ഓ ഓ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വിളിക്കാം അപ്പോഴത്തേക്കും എൻ്റെ കൂട ഒന്ന് വന്നാൽ മതി ഓ ശരി ആ ആ ശരി എന്നാൽ ആ ആ ആ

ആ ആ ആ ശരി ഓ ഓ ശരി എന്നാൽ ആ